ബൈക്കിങ് നടത്താൻ ഉള്ള പ്രായ പരിധി ഈ സമയങ്ങളിൽ നമുക്ക് നമ്മൾ ആരും ബൈക്ക് എടുത്തിട്ട് പോവാനുള്ള ഇതൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ബൈക്ക് ബൈക്കിങ് നടത്താൻ ആൾ ഇൻഡ്യയിൽ വേണമെങ്കിൽ നമുക്ക് പോകാം ഇപ്പം ഈ മല ഐസ് വീഴുന്ന സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ പോകാം പക്ഷെ നമുക്ക് അവിടെയൊക്കെ പോയി വരാൻ ഒരു റിസ്ക്ക് വളരെ കൂടുതലാണ് അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിലെ ബൈക്കിങ് ആസ്വദിച്ചിട്ടുള്ളത് അല്ലാതെ കണ്ടിട്ടുണ്ട് കൂടുതലും കൂടുതലും കാണാനുള്ള ഇടയാക്കി കിട്ടിയത് യൂറോപ്പിലാണ് യൂറോപ്പിൽ പോവാനുള്ള ചാൻസ് കിട്ടി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഓരോ കാര്യങ്ങള് കണ്ട് കഴിഞ്ഞപ്പോൾ ബൈക്കിങ്ങിൻ്റെ എന്നു വച്ച് കഴിഞ്ഞാൽ രണ്ട് പേരുണ്ടെങ്കിൽ രണ്ട് പേരുടെയും ചെവിയിൽ ഇയർ ഫോണുണ്ടാവും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും പറയാനും പക്ഷെ അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷെ ഇത് അപകടങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് സത്യമാണ് അവിടെയൊക്കെ അവിടുത്തെ അവിടുത്തെ നിയമങ്ങളെന്ന് വച്ചു കഴിഞ്ഞാൽ പുറകിൽ ആൾ ഇരിക്കുകയാണെങ്കിൽ അയാളുടെ കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് ഇത് ഇയർ ഫോണുണ്ടാവണം കാരണമെന്ന് വച്ചു കഴിഞ്ഞാൽ അവിടത്തെ ബൈക്കിലേക്ക് ഒന്ന് വച്ച് കഴിഞ്ഞാൽ നൂറും നൂറ്റമ്പത് സ്പീഡിലൊക്കെയാണ് പോയി കൊണ്ടിരിക്കുന്നത് അപ്പം അവർക്ക് എന്തെങ്കിലും പുറകെ ഇരിക്കുന്ന ആൾക്ക് റൈഡറോട് അത് വല്ലതും പറയണമെങ്കിൽ അവർക്ക് ആ മൈക്കിൽ പറഞ്ഞാൽ മതി കേട്ടോളും അല്ലാതെ അത്രയും സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിൻ്റെ അകത്ത് പുറകെ ഇരുന്ന് കാര്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെസ്റ്റ് ജർമ്മനിയിലുള്ള കുറേ റോഡുകളുണ്ട് അവിടെയാണ് ഇതിനെ പറ്റി ഞാൻ കണ്ടിട്ടുള്ളതും അവിടെ ബൈക്കിൽ നിന്ന് ഓടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കാണാൻ വലിയ രസമാണ് ഇത് ഇത് ഓടിക്കൊണ്ട് പോവുന്നതും അവർ ഇറക്കമിറങ്ങി വരുമ്പം ഫ്രണ്ടിലെ വീല് പൊക്കി കൊണ്ട് പോവുന്നതും എല്ലാം കാണാൻ നല്ല രസമാണ് അപ്പം അത് ഞാൻ ബൈക്ക് ഓടിക്കാൻ തുടങ്ങിയതിൽ പിന്നെ സാധാരണ ഗതിയിൽ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോവുക തിരിച്ച് കയറി വിടുക അല്ലാതെ ബൈക്കിങ്ങ് ഒരു ഹോബിയായിട്ടോ അങ്ങനായിട്ടുള്ളതൊന്നും ഞാൻ കാണക്കാക്കിയട്ടില്ല പിന്നെ അങ്ങനെ കണക്കാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അത് കഴിഞ്ഞു നമ്മൾക്ക് ബൈക്കിൻ്റെ ആവശ്യം നമ്മൾ ഇപ്പം ഈ സാധാരണ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് ഒരു ഹോബി ആയിട്ടല്ല നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പോവുക നടക്കാതെ പോയി തിരിച്ച് വരിക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ഓരോ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് പ്രത്യേകം ഒരു സ്ഥലത്തൊക്കെ പോകണമെന്ന് വച്ചു കഴിഞ്ഞാൽ ഇപ്പത്തേന് ഇവിടെ നിന്ന് തിരുവനന്തപുരം പോകണം പിന്നെ അത് ഇത്ര സമയത്ത് എത്തണം അങ്ങനെയൊക്കെ പോവണ്ട സ്ഥലത്ത് പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് തിരുവനന്തപുരം എറണാകുളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പം അതിനൊക്കെ നമ്മൾ സമയങ്ങൾ ക്രമീകരിച്ചും സേഫ്റ്റിയൊക്കെ മുൻനിർത്തിയൊക്കെ പോവുകയുള്ളു ആ അങ്ങനെ പോയിട്ട് ഒരു അതൊക്കെയുണ്ട് പല കാര്യങ്ങളുണ്ട് നമ്മളെ സമയത്ത് വീട്ടിൽ പോകാം വീട്ടിലെത്താം രാത്രിയിൽ ഡ്യൂട്ടി കഴിയുമ്പോൾ അന്നേരം ഇവിടെ നിന്നിറങ്ങാം ഇറങ്ങി കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പം വീട്ടിൽ വരാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലോകത്തിലെ യൂറോപ്പിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളു അവിടെയാണ് അവിടെ ഈ തണുപ്പ് കാലാവസ്ഥയിൽ ബൈക്ക് ആരും ഓടിക്കാറില്ല

വീണ്ടും സമ്മറിൽ മാത്രമേ ഓടിക്കാറുള്ളു ആ സമയങ്ങളിൽ മാത്രമേ അവിടെ റോഡ് ഓപ്പണാവുള്ളു ബാക്കി എല്ലാ സമയവും ഇത് മഞ്ഞും എല്ലാ കാര്യങ്ങളുമാണ്